ഹലോ തോപ്രാംകുടിയിൽ നിന്ന് റജീനയല്ലേ ആ ഒരു ഇന്നലെ ഒരു ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നോ അവിടെ ഉണ്ടായിരുന്നു ഞാൻ മനോരമയിലെ റിപ്പോർട്ടറാണേ എനിക്കു അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ എപ്പോഴായിരുന്നു ആക്സിഡന്റ് നടന്നത് ആ വൈകിട്ടായിരുന്നു അല്ലേ രാത്രിയിലാണ് കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയാവോ ആ വളവിലെ എന്താ ഏതൊക്കെ വണ്ടികളായിരുന്നു ആക്സിഡന്റ് ആയത് ആ മനസ്സിലായി മനസ്സിലായി സ്പീഡില് ബൈക്കുകാരുടെ സ്പീഡ് കാരണമാണ് അപകടം ഉണ്ടായത് അല്ലേ ഓക്കേ അവർ അവർ ആ ഓക്കേ അവർ എവിടെയുള്ളവരാണെന്ന് വല്ലതും അറിയാമോ ബൈക്കുകാർ മുരിക്കാശ്ശേരിക്കാരാണ് അല്ലേ ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയേക്കുന്നത് ഓക്കേ കോട്ടയം മെഡിക്കല് കോളേജ് അവിടെ വന്നാൽ താങ്കളെ കാണാൻ സാധിക്കുവോ താങ്കളുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ കാണാം അല്ലേ അപകടം നടന്ന സ്ഥലങ്ങളൊക്കെ കാണാം ഓക്കേ ആയിട്ടുള്ള വേറെ വേറെയാരോടും ചോദിക്കേണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആണല്ലോ നടന്നത് അല്ലേ ആ അതേ ഓവർ സ്പീഡ് പോലിസോക്കെ അവിടെ നടപടികളൊക്കെ സ്വീകരിച്ചോ ഓക്കേ ആ കൊച്ചിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ കുട്ടിയുടെ വീട്ടിൽ

ഇല്ലായിരുന്നു അതിനാണോ പരിക്ക് കൂടുതൽ ഓക്കേ ഒരാൾ മരിച്ചു ഒരാള്ക്ക് അപകടം പരിക്കു പറ്റി ആ ഓക്കേ ഓക്കേ ഹെല്മറ്റ് ഇല്ലായിരുന്നു ആ അതെ അതെ അതെ ഹെല്മറ്റിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞുകൊടുത്താലും മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക ആ ഇതിലൊക്കെ ബോധവാന്മാരായിരിക്കണം നമ്മൾ എല്ലാവരും ആ അതെ അതെ ആ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണോ ലൈസൻസ് ഒക്കെ കാണുമായിരിക്കും അല്ലേ ആ ലൈസന്സ് ഉണ്ടായിരുന്നോ അങ്ങനെ വല്ലതും അറിയാമായിരുന്നോ താങ്കള്ക്ക് ലൈസന്സ് ആ ഓക്കെ ലൈസന്സ് ഉണ്ടോ എന്നറിയത്തില്ല ഇല്ലേ ആ ആ ഓക്കേ ഓക്കേ കോട്ടയം മെഡിക്കല് കോളേജിലെ കുട്ടികളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമോ ഐ സി യുവിലായിരിക്കും അതേ ഓക്കേ ഓക്കേ ഇത്രയും ഡീറ്റെയിൽസ് തന്നതിന് വളരെയധികം നന്ദി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കളെ വിളിക്കുന്നതായിരിക്കും താങ്ക്യൂ